ഹലോ നെയ്ൻറ്റി എയ്റ്റീസ് റസ്റ്റോറൻറ്റ് അതെ ഉണ്ടല്ലോ മാഡം

നമ്മളുടെ ഇതിന് ചുറ്റുവട്ടതായിട്ട് രണ്ട് കിലോമീറ്ററിനിൽ ഉള്ളിൽ ഹോം ഡെലിവെറി പതിനഞ്ച് മിനിറ്റിനുള്ളിലും ഇരുപത് കിലോമീറ്ററിന് ഉള്ളിലാണെങ്കിൽ തെർട്ടി മിനിൻറ്റിസിൻ്റെ ഉള്ളിലും ആണ് ഡെലിവെറി ഹോം ഡെലിവെറി നടത്തുന്നത് അ അ മാംമിൻ്റെ വീട് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ മീനങ്ങാടി അതെ അപ്പം ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും മാഡം അതെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചിടുട്ടോ ഇവിടെ വെറൈറ്റി ആയിട്ടെന്ന് പറഞ്ഞ്കഴിഞ്ഞാല് റുമാലി ഷവർമയുണ്ട് പിടിയും ചിക്കനും നാടൻ സദ്യയുണ്ട് പിന്നെ കണ്ണൂരുകാരുടെ തലശ്ശേരി ദം ബിരിയാണിയുണ്ട് പിന്നെ ബീഫ് ബീഫിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ബീഫ് ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് മാഡം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചില്ലി ചിക്കൻ ചിക്കൻ ലോലിപോപ് കെഎഫ്സി ബ്രോസ്സ്റ് അതെ ഒരു പ്ലേറ്റ് വേറെന്താണ് മാം വേണ്ടത് സ്പൈസിയാട്ട് ഇപ്പം ചൈനീസ് ഡിഷുകളാണ് കൂടുതലായിട്ടും സ്പൈസി ആയിട്ട് ഇറങ്ങുന്നത് മാം വേറെന്താണ് മാം വേണ്ടത് അ മോജിറ്റോ ഉണ്ട് മിൻറ്റ് ലൈയിം ഉണ്ട് ലൈയിം ജ്യൂസ് ഉണ്ട് ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ചിക്കു അനാർ ഇത്രയാണ് മാം ഉള്ളത് ചിക്കുല്ലേ അതെ ഓക്കേ മാം അ അ മാഡംഅത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റാണ്

അ എത്രപേർക്കുള്ള ക്വാണ്ടിറ്റി ആണ് മാഡം വേണ്ടത് നാല് പേർക്കുള്ളതല്ലേ ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവെറിയും ഉണ്ട് മാം നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുന്നേ അ ഓക്കേ

അ താങ്ക്യൂ മാം